എനിക്ക് വരയ്ക്കാന് തോന്നാത്ത ദിവസം ഉണ്ടാവാറുണ്ട് എപ്പോഴും എല്ലാ ദിവസവും ഞാൻ വരയ്ക്കാറൊന്നും ഇല്ല അതിന്റെ കാരണം എന്തെന്ന് വച്ചാല് എനിക്ക് എന്തെങ്കിലും ഒരു വരയ്ക്കണം എന്നുള്ളൊരു ഫീൽ വരണം അങ്ങനെ മനസ്സില് തോന്നിയാൽ മാത്രമേ ഞാന് വരയ്ക്കാറുള്ളൂ അല്ലെങ്കില് ഒരു ബുക്കും പേനയും തന്നിട്ട് വരയ്ക്ക് എന്ന് പറഞ്ഞാല് എന്നെക്കൊണ്ട് അതിനു പറ്റില്ല നമുക്ക് വരയ്ക്കണം മനസിന്റെ ഉള്ളില് ഒരു തോന്നല് വേണം എന്നാലെ ഞാന് വരയ്ക്കാറുള്ളൂ